ഏത് ബാങ്കിങ്ങാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ ഇ ബാങ്കിങ്ങ് തന്നെയാണ് ഉത്തമം എന്ന് പറയാം ഇൻറ്റർനെറ്റിലൂടെ നമ്മള് ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം എന്ന് പറയാം കാരണം നമ്മള് നേരിട്ട് പോയി ചെയ്യണ്ട ഇപ്പോൾ ലോൺ അപ്ലൈയ്യാനാണെങ്കിലും നേരിട്ട് ഞമക്ക് പോയി ചെല്ലണ്ട ആവശ്യമില്ല നമ്മുടെ ടൈം നമുക്ക് മാനേജെയ്യാൻ പറ്റും പിന്നേ ഇൻ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് വേണെങ്കിലും ഫോണിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങ് എന്ന് പറഞ്ഞാൽ